ഇന്ന് നമ്മുടെ കേരളത്തിൽതന്നെ ഒരുപാട് കായിക വിനോദങ്ങൾ ഉണ്ട് ഏതൊക്കെ ഷട്ടില് അതുപോലെ ക്രിക്കറ്റ് ഫുട്ബോള് ഹൈ ജമ്പ് ലോങ്ങ് ജമ്പ് അതുപോലെ ഹോക്കി അങ്ങനെ ഇഷ്ട്ടം പോലെ ക്യാരംസ് അതുപോലെ ചെസ്സ് പിന്നെ സ്നേക്ക് ആൻഡ് ലാഡർ ഇങ്ങനെ ഒരുപാട് കായിക വിനോദങ്ങൾ ഉണ്ട് അപ്പം ഇതിലൂടെയൊക്കെ ഏർപ്പെടുന്നതിലൂടെ നമ്മുടെ കഴിവിനെയാണ് നമ്മൾ ഉയർത്തി കൊണ്ട് വരുന്നത് ഇപ്പം നമ്മൾക്ക് ഇപ്പമൊന്നും ചെയ്യാതെ നമ്മള് വീട്ടിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാൻ നമുക്ക് കഴിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ കൂടെ കായിക മേഖല മേഖലകളിൽ ഏർപ്പെടുമ്പോൾ അല്ലങ്കിൽ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമക്കതിനെക്കുറിച്ചുള്ള ഒരറിവും അതുപോലെ അതിനെക്കുറിച്ച് അതിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും അതുപോലെ നമുക്ക് ഈ കളി അറിയാം അത് പഠിക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യുക ഇപ്പം ഷട്ടില് നമുക്ക് കളിച്ച് തുടങ്ങിയാൽ നമുക്കത് അറിയില്ല ഒരുപാട് സമയം ശ് പരിശീലിച്ച് പരിശീലിച്ച് വേണം നമ്മുക്കൊരു കാര്യത്തിലേക്ക് എത്തി ചേരാൻ അതുപോലെ തന്നെയാണ് നമുക്കെന്ത് ഡ്രീമുണ്ടെങ്കിലോ അതിപ്പം നമ്മള് ഒരുപാട് കഷ്ട്ടപ്പെട്ടാൽ മാത്രമെ ആ ഡ്രീമിൽ നമുക്ക് എത്തുകയുള്ളു അപ്പം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കഴിവ് പുറത്തെടുക്കാനും നമ്മൾ പ്രാക്റ്റീസ് ചെയ്ത് ചെയ്ത് നമുക്കത് വികസിപ്പിച്ചെടുക്കാനും കഴിയും അതിലൂടെ നമുക്ക് ഓരോ ഓരോ പ്രോഗ്രാമിലും ഏർപ്പെടണം അല്ലങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നല് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരാം അത് നമുക്ക് തന്നെയാണ് ഒരു പ്രചോദനം ആയി മാറുന്നതും